തീർച്ചയായിട്ടും ഈയൊരു തൊഴിലിൽ രസകരമായി തോന്നുന്ന ഘടകമെന്താണെന്ന് ചോദിച്ചാല് കടലിൽ പോകുന്ന സമയത്തുള്ള അവിടുത്തെ അനുഭവവും കാര്യങ്ങളുമൊക്കെ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വളരെയധികം രസകരമാണ് അവിടുത്തെയോരോ കാഴ്ചകളും പിന്നെ അതുപോലെ തന്നെ നമുക്കിടയില് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങളും ഭക്ഷണം പാകം ചെയ്യുന്നതും നമ്മുടെ ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ നമുക്കിവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കെന്താണ് വലിയൊരു വലിയൊരു രസകരമായിട്ട് നമുക്ക് തോന്നുകയാണ് അല്ലേ തീർച്ചയായിട്ടും അത് അങ്ങനെത്തന്നെയാണ് അപ്പോള് ഈയൊരു ഘടകത്തില് എനിക്ക് രസകരമായി തോന്നുന്ന സംഭവം ഘടകമെന്താണെന്ന് ചോദിച്ചാൽ ഈയൊരു തൊഴിലില് ഒരു രസകരമായ ഘടകമെന്താണെന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും നമ്മള് അവിടേക്ക് പോകുന്ന സമയത്തും അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്തും തീർച്ചയായിട്ടും ഒരു തൊഴിൽ അതൊരു രസകരമായി എടുത്താൽ എന്താണ് എന്താണ് അയാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഒരു ഘടകത്തെ എടുക്കാതെ ടോട്ടലി ആ തൊഴിലിനെ തന്നെ രസകരമായിട്ടെടുത്താൽ അല്ലേ ഇപ്പം നമ്മള് അവിടെയൊക്കെ പോകുന്നതും അവിടെ നിന്ന് വരുന്നതുമൊക്കെ കാര്യങ്ങളുമൊക്കെ തീർച്ചയായിട്ടും വളരെയധികം രസകരമായിട്ടുള്ള സംഭവങ്ങള് തന്നെയാണ് കാര്യം ഓരോ സന്ദർഭങ്ങളും നമുക്ക് അങ്ങനെത്തന്നെ വിശ്വസിക്കാൻ പറ്റും ഇനി നിങ്ങളുടെ തലമുറ നമ്മുടെ തലമുറയ്ക്ക് ശേഷവും ഇതുതന്നെ തുടരണമെന്നുള്ളാണ് കാരണം മത്സ്യബന്ധനം മത്സ്യം നമുക്ക് കഴിക്കാൻ പറ്റണമെങ്കില് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മത്സ്യബന്ധനത്തിലൂടെയല്ലാതെ വേറെ എങ്ങനെയെങ്കിലും പറ്റുമോയെന്ന എനിക്കറിയില്ല തീർച്ചയായിട്ടും അത് എന്നു ചോദിച്ചാല് വേണം അതായത് നോ വേ വേറെ വഴികളൊന്നുമുണ്ടാകില്ല മത്സ്യബന്ധനത്തിലൂടെയല്ലാതെ കേരളത്തിലെ ആളുകൾക്ക് അല്ലെങ്കില് മറ്റു നാടുകളിലെ ആളുകൾക്ക് മത്സ്യം ലഭിക്കുകയെന്നുള്ളത് അങ്ങനെയുണ്ടാകണമെന്നില്ല അപ്പോള് മത്സ്യബന്ധനം വേണം കാരണം പ്രത്യേകിച്ചും എല്ലാകാലത്തും എല്ലാ വീടുകളിലും കാണപ്പെടുന്നൊരു സംഭവമാണ് മത്സ്യമെന്നുള്ളത് അതിപ്പോള് വില കൂടിയാലും ഒരു കഷ്ണം മീനെങ്കിലും തിന്നാതെ ചോറ് ഇറങ്ങുന്ന ആൾക്കാര് ഇവിടെ വളരെയധികം കുറവേ കാണൂ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ തലമുറകളും എല്ലാവരും ഈ ഒരു തൊഴിലിലേക്കിറങ്ങാതെ ഒരു ഭാഗത്ത് ഇപ്പോള് കടൽതീരത്തുള്ള ആളുകളെങ്കിലും ഈയൊരു തൊഴിലിലേക്കിറങ്ങി നമുക്ക് കേരളത്തിലെ ആളുകൾക്കെങ്കിലും എന്താണ് ഫിഷും മീനും കാര്യങ്ങളും എന്താണ് നമുക്കെത്തിക്കാൻ സാധിക്കണം ഒരിക്കലും ഒരു തൊഴിലിലേക്ക് എല്ലാ ആളുകളും കൂടെ എല്ലാ ജനങ്ങളും കൂടെ എന്താണ് ഇറങ്ങാൻ പാടില്ല അതൊരു ആ സമുദായത്തിൻ്റെ തോൽവിയായി മാറിയേക്കാം നേരെമറിച്ച് ഒരു നിശ്ചിതയാളുകള് മാത്രം അല്ലെങ്കിൽ ഒരു കുറച്ചാളുകള് മാത്രം ഇതിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും നമുക്കെന്താണ് വളരെയധികം വിജയമതിൽ കണ്ടെത്താൻ പറ്റും ഈയൊരു അഭിപ്രായമാണ് എനിക്ക് ഈ മത്സ്യബന്ധനത്തെക്കുറിച്ച് രസകരമായി തോന്നുന്നതായി എനിക്ക് പറയാനുള്ളതും അതുപോലെ തന്നെ തലമുറകള് ഈയൊരു തൊഴിലിലേക്ക് വരുന്നതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതും